ആ ടൂറിസ്റ്റ് സെൻ്റർ അല്ലേ അടുത്താഴ്ച ഒരു ടൂറ് വരണം ആയിരുന്നു കേരളത്തിൽ കേരളത്തിലേക്ക് അവിടെ ഉള്ള ഞങ്ങൾ ഒരു നാല് പേരുണ്ട് ആ അത് എങ്ങനെ ആണ് ഇവിടെ വണ്ടി ഒക്കെ ലഭിക്കുന്നതാണോ ആണോ ഫുഡ്ഡ് ഒക്കെ

കേരളത്തിൽ മൊത്തമായിട്ട് വേണ്ട നമ്മൾക്ക് കുറച്ച് സ്ഥലങ്ങൾ മാത്രം മതി ഒരു ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് ഒക്കെ ആണെങ്കിലോ

വെഹിക്കിളും എല്ലാം കൂടി വണ്ടി ചാർജ് എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഇപ്പം വരുന്നുണ്ടെങ്കിൽ എല്ലാം കരുതിട്ട് വരണം എന്നുള്ളൂ റൂം റൂമ് ഫെസിലിറ്റീസ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടല്ലോ ഡേയ്സ് ഡേറ്റ് കൺഫേം ചെയ്തിട്ട് പിന്നെ വിളിക്കാം ആ ആ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യേണ്ടതാണ് കേട്ടോ ഓക്കെ ശരി ആ ഡേറ്റ് കൺഫേം ചെയ്തിട്ട് വിളിക്കാം ഓക്കെ ഓക്കെ താങ്ക് യു